എൻ്റെ ആരാധനാ കേന്ദ്രം എന്ന് പറയുന്നത് എൻ്റെ ഇടവക പള്ളിയാണ് അത് എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കരുതുന്ന ഒരാളാണ് ഞാൻ വിശുദ്ധ ബലി അർപ്പിച്ചു വിശുദ്ധ കുർബ്ബാന സ്വീകരിച്ചു നമുക്ക് അന്ന് ലഭിക്കുന്ന ഒരു സന്തോഷം സമാധാനം അത് മറ്റൊരിടത്തും കിട്ടത്തില്ല നമുക്ക് കിട്ടുന്ന ആ സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ നൽകുന്നതിനും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതിനും എനിക്ക് കഴിയുന്നെങ്കിൽ അത് എൻ്റെ ലക്ഷ്യത്തെ പര്യാപ്തമാക്കുന്നതാണ് എൻ്റെ നാട്ടിൽ ഈ എൻ്റെ ഇടവക പള്ളിക്ക് മറ്റു രണ്ട് കുരിശുപള്ളികൾ ഇവിടെ ഉണ്ട് വിശുദ്ധ യൂദാശ്ലീഹയുടെ നാമത്തിലും അൽഫോൺസാമ്മയുടെ നാമത്തിലും ഈ രണ്ട് കുരിശ് പള്ളികൾ കുരിശുപള്ളികളിൽ വർഷംതോറും അവിടെ തിരുന്നാളുകളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടെങ്കിലും ഞാൻ പ്രധാനമായും ഇടവക പള്ളിയിൽ മുഴുവൻ കാര്യങ്ങൾക്ക് മാത്രമേ പങ്കെടുക്കാറുള്ളു മറ്റെടുത്ത് വീട്ടിലെ എല്ലാവരും പോവുമെങ്കിലും പോകാനുള്ള ബുദ്ധിമുട്ടുകളും മറ്റും കൊണ്ട് മറ്റു പള്ളികളിൽ അധികം പോവാറില്ല ഇടവക പള്ളിയിൽ മുഴുവനും കാര്യങ്ങളിലും ഭംഗിയായി പങ്കെടുക്കുകയും വിശുദ്ധ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുകയും ധ്യാനങ്ങളാണെങ്കിലും കുർബാന മറ്റു പള്ളികളിൽ സ്വന്തമായിട്ടുള്ള എല്ലാ പരിപാടികളിലും വിശ്വാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും സജ്ജീകരണങ്ങൾ കൊടുക്കാറുണ്ട് പള്ളി പൊതുഭരണത്തിലെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോവാറില്ല അതിനുള്ള ആ പ്രായവും കഴിഞ്ഞു പക്ഷെ പള്ളിയിലെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലെ ആത്മീയ മാനസികമായ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എല്ലാ ദിവസവുമുള്ള വിശുദ്ധ ബലി അർപ്പണമാണ് വിശുദ്ധ കുർബ്ബാന സ്വീകരണമാണ് അത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഏറ്റവും വലിയ കാര്യം വിശുദ്ധ ബലി തന്നെ ആണ് അത് എന്നെ സംബന്ധിച്ചെന്ന് മാത്രമല്ല ഒരു ഒരു ക്രിസ്തു മത വിശ്വാസം സംബന്ധിച്ചു അവർ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ഏറ്റവും വലിയ വലിയ അവസരം ഇത് തന്നെയാണ് വിശുദ്ധ ബലി തന്നെയാണ് വിശുദ്ധ കുർബ്ബാന സ്വീകരണമാണ് കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു മുമ്പോട്ട് പോകുന്ന അവർക്ക് മറ്റ് ഏത് ഒരുമാതിരിപ്പെട്ട ഏത് പ്രശ്നങ്ങളെയും സുഖമാണെങ്കിലും ദുഖമാണെങ്കിലും അതിനെ ഉൾക്കൊള്ളാനും സന്തോഷത്തോടെ അതിൻ്റെ കാര്യങ്ങൾ നടത്താനുമുള്ള ശക്തിലഭിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല